ഹലോ ഹലോ ആരായിരുന്നു ആണോ എന്നാണ് വാങ്ങിച്ചത് ആ ഓക്കേ പറഞ്ഞോളൂ ചേച്ചി എന്നാ പ്രശ്നം എന്നാ ആ മാം എവിടുന്നാണ് കഴിച്ചത് ഇവിടുന്ന് നമ്മുടെ ഇവിടെന്നാണോ കഴിച്ചത് അതോ ഹോം ഡെലിവറി ചെയ്തതാണോ ആ എങ്കിൽ നിങ്ങളുടെ തിരിച്ചയക്കാത്ത എന്നാ അപ്പോൾ അപ്പോൾ ഇന്നലെ വാങ്ങിച്ചതല്ലേ അപ്പോൾ ഇന്നലെത്തന്നെ തിരിച്ചയക്കാത്ത എന്നാ നിങ്ങളുടെ അപ്പം തന്നെ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മാറ്റിത്തരുവോ അതിൻ്റെ പ്രശ്നമൊന്ന് നേരിട്ട് മനസ്സിലാകുവല്ലോ ഇപ്പോൾ ഒരു തെളിവും ഇല്ലല്ലോ നമ്മൾ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ ശരിയാണോ തെറ്റാണോ പറയുന്നതെന്ന് ആം ആ മേഡം ഞങ്ങളുടെ ഇവിടെ പ്രൊഫഷണൽ കുക്കിനെ വെച്ചാണ് നമ്മളിവിടെ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ആങ്ങനെ വരാനൊരു സാധ്യതേം ഇല്ല നിങ്ങളീ ഹോട്ടലീന്ന് തന്നെ ആണോ വാങ്ങിച്ചത് ആ അപ്പോൾ ഒന്നേ ഒന്നെങ്കിൽ ചോറിൻ്റെ ചോറ് കുക്കായി പോയതായിരിക്കും സാധാരണ അങ്ങനെ വരുന്നതല്ല നമ്മൾ ഹൈ ക്കോൾറ്റി അരിയാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത് അങ്ങനെ വരുന്നതല്ല എന്ന പറ്റിയെന്ന് അറിയത്തില്ല ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഷെഫിനടുത്ത് ഒന്ന് ചോദിച്ച് നോക്കട്ടെ ഷെഫിനോട് ചോദിച്ചിട്ട് ഞാൻ ക്ലാരിഫൈ ചെയ്യാം

അല്ല മാഡം നമ്മളൊരിക്കലും ഇങ്ങനെ കസ്റ്റമറിന് മോശം ഇത് വരുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ കൊടുക്കത്തില്ലല്ലോ ഇതെന്തുപറ്റി എന്ന് എനിക്ക് ക്ലിയർ അല്ല ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ പുള്ളിയോട് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം

ആ ഇതെന്തുപറ്റി എന്നറിയത്തില്ല മാഡം ഞാൻ എന്തായാലും ഉടനെ ക്ലാരിഫൈ ചെയ്യാം ഞാൻ വിളിക്കാം എന്തായാലും തിരിച്ച് വിളിച്ചോളാം ഉടനെ അങ്ങനെ വരാൻ ഒരു കാര്യവുമില്ല മേഡം നമ്മൾ വളരെ ഹൈജീനിക്കായിട്ട് ചെയ്തതാണ് പഴകിയ ഒരു വസ്തുവും നമ്മൾ ഉപയോഗിക്കാറില്ല നമ്മൾ എല്ലാം നാച്ചുറൽ പൗഡേഴ്സ് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് ചിക്കനായാലും നമ്മൾ അന്നന്ന് വാങ്ങുന്ന ചിക്കനെക്കെയാണ് ഉപയോഗിക്കുന്നത് പഴകിയ ഒരു വസ്തു ഉപയോഗിക്കാറില്ല ആ ഓക്കെ ഓക്കേ സോറി എന്തോ ആ ഓ ആ എന്തായാലും ഞാൻ അന്വേഷിച്ചിട്ട് ഉടനെ വിളിക്കാം മേഡം ഇപ്പോൾ വിളിക്കാം ഉടനെ വിളിക്കാം ശരി ശരി